ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ കുറേ ചെയ്യാറുണ്ട് കുറേ നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ കുറേ എന്താ കൾച്ചറുണ്ട് കുറേ ഡീസൻ്റ്ലി കേരളത്തിൽ മെയിനായിട്ട് ഇങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അപ്പോൾ മാക്സിമം ഹിന്ദൂസാണ് കേരളത്തിലുള്ളത് ക്രിസ്ത്യൻസും അത്യാവശ്യമുണ്ട് ബിക്കോസ് എന്താ സീ സൈഡായതുകൊണ്ട് പിന്നെ ചില ഏരിയയിൽ മുസ്ലിംസുണ്ട് അത്യാവശ്യം എല്ലാവരും ഉള്ളൊരു സ്ഥലമാണ് കേരളം അപ്പോൾ ഇങ്ങനെ മുസ്ലിംസിൻ്റെ പരിപാടിയായിട്ട് എനിക്ക് ചെയ്യുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല അവരിങ്ങനെ ആഘോഷിക്കും ഇങ്ങനെ ഈദ് ഇങ്ങനെ പരിപാടി എന്ത് അവരുടെ പെരുന്നാളൊക്കെ വരുമ്പോൾ അങ്ങനെ ആഘോഷിക്കും അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും എത്തി എടുത്തു പറയാവുന്ന രീതിയ്ക്കവർ ആഘോഷിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ എൻ്റെ അറിവിൽ എനിക്കറിഞ്ഞുകൂട ചിലപ്പോൾ കാണുമായിരിക്കാം ഞാനറിയാത്തതായിരിക്കാം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ആ ഈ എന്താ ഈ ഹിന്ദുയെന്നൊക്കെ പറയുമ്പോൾ അവരുടെ തൃശ്ശൂരിലെ പൂരവും കുറേ അമ്പലങ്ങളുണ്ട് കുറേ ഉത്സവവും കുറേ കാര്യങ്ങളുണ്ട് അത് ചെറിയ ചെറിയ അമ്പലത്തിൽപ്പോലും നല്ല രീതിയ്ക്ക് ഗ്രാൻഡായിട്ട് എല്ലാവരും ഉത്സവം നടത്തുന്നത് അവരുടെ ഏരിയ അനുസരിച്ച് എത്രയാൾക്കാരുണ്ടോ ആൾക്കാർക്കനുസരിച്ചൊരു ഗ്രാൻ്റ്നെസ് കാണും അത് ചിലപ്പോൾ നമ്മളിങ്ങനെ എന്താ ചുമ്മാ നോർമൽ ഡെയ്സ് ആ വണ്ടി കാറിലങ്ങനെ അമ്പലങ്ങളിൽ ക്രോസ് ചെയ്തു പോകുമ്പോൾ നോർമലൊരു ടെമ്പിള് ടെമ്പിളായിരിക്കും പക്ഷെ ഉത്സവത്തിൻ്റെ അന്ന് ആൾക്കാരെല്ലാം കൂടി ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോഴതൊരു നല്ലൊരു സാധനമാണ് ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാവരും കൂടി വർക്കു ചെയ്ത് എടുത്ത് അത് അതു നല്ല എന്താ നല്ലൊരു പരിപാടിയാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആ ഒറ്റ ദിവസത്തിനുവേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്നു വർക്ക് ചെയ്യുന്നു അപ്പോൾ ഗ്രാൻഡായിട്ടുതന്നെ മിക്ക അമ്പലത്തിലും ചെയ്യാറുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് തൃശ്ശൂർപ്പൂരം പിന്നെ കോട്ടയത്തെങ്ങാണ്ട് ഒരമ്പലം ഉണ്ടവിടെ എന്താ പൂരത്തിൽ ഈ ജയറാമൊക്കെ വന്നിട്ട് പുള്ളിക്ക് പുള്ളിയൊക്കെ വന്നിട്ട് ചെണ്ടയടിക്കും അങ്ങനെ പിന്നെ ഓണത്തിന് അത്യാവശ്യമല്ല ഓണത്തിന് പിന്നെ ഫുൾ കേരളവും അത് ചെയ്യും അത് നമുക്ക് മതപരമായിട്ട് പറയാൻ പറ്റുമോയെന്നു ചോദിച്ചാൽ അത് നാടിൻ്റെ ഒരു എന്താ കേരളത്തിൽ കേരളം എന്നു പറഞ്ഞാൽ നാടിൻ്റെയൊരു ആഘോഷമാണതിൽ നമ്മൾ മതം ഒന്നും നോക്കാറില്ല ഇങ്ങനെ മതം ഇങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു മാത്രമേ ആഘോഷിക്കത്തുളളൂ ആണെന്നു പറഞ്ഞാൽ കേരളം എന്നു പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു എന്താ ആഘോഷമാണ് അതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതിപ്പോൾ ഹിന്ദൂസ് കുറേ പൂരം അമ്പലത്തിൽ കുറേ ഉത്സവം എല്ലാം നല്ല വെടിക്കെട്ടും ആനയും അങ്ങനെ കുറേ ചെയ്യാറുണ്ട് അത് അതാണ് ഇവിടെ കേരളത്തിൽ കുറച്ചുകൂടി പിന്നെ ക്രിസ്ത്യൻസിൻ്റെ സംഭവത്തിൽ ഇങ്ങനെ എടുത്തു പറയുന്നുള്ളത് കൊച്ചിൻ കാർണിവെല് അവർ അതവർഎന്താ ക്രിസ്മസിനും ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ കൊച്ചിൻ കാർണിവെൽ എന്നു പറഞ്ഞാൽ അതിപ്പോഴൊരു മതപരമായിട്ട് വരുന്നതാണ് അപ്പോൾ ആ കൊച്ചിൻ കാർണിവൽ അവരെല്ലാ വർഷവും നടത്താറുണ്ട് പപ്പയിനെ കത്തിക്കൽ എല്ലാം എല്ലാം ചെയ്യാറുണ്ട് അതൊരു നല്ലൊരു ആവേശമാണ് കൊച്ചിൻ കാർണിവല് പക്ഷേ ഞാനിതുവരെ കൂടിയിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് കുറേ കൊച്ചിൻ കാർണിവെൽ കൊച്ചിൻ കാർണിവെൽ എന്നു കുറേപേർ പറയുന്നത് പിന്നെ അല്ലാതേയും എന്താ വിമൽ ഞങ്ങൾ ഞങ്ങൾ ഞാനിപ്പോൾ ക്രിസ്ത്യനാണ് അപ്പോഴെനിക്ക് ഇങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ കുറേ ഇതൊക്കെ അറിയാം പള്ളിപ്പെരുന്നാളും ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളിനൊക്കെ ഞങ്ങൾ നല്ല രീതിയ്ക്ക് ഒരത്യാവശ്യം ചെയ്യും ഞങ്ങൾ ഇടവക പള്ളിയിനെക്കാട്ടിലും പട്ടുമലമാതാ പള്ളിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവടേക്കാണ് ഫുൾ ഞാൻ ആ പള്ളിയിലേക്ക് എന്താ ഞായറാഴ്ച്ച കുർബാന കൂടാനൊയേക്കെ പോകാറുള്ളൂ അപ്പോൾ ആ പള്ളിയിൽ പട്ടുമലമാതാവിൻ്റെ ആ എട്ടുനാൾ നോയമ്പിൻ്റെ എന്താ പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് നല്ല നല്ല രീതിയ്ക്ക് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവിടെ പരിപാടി ഗ്രാൻഡാവാനുള്ള മെയിൻ കാരണം കുറേ ആൾക്കാർ വരും ആ പെരുന്നാളിനെ ഹെൽപ്പ് ചെയ്യാനും കൂടാനും പിന്നെ ആ തീർത്ഥാടന കേന്ദ്രമുണ്ടാവും മാതാവിൻ്റെ ഒരു മഹിമയാണെന്നു തോന്നുന്നു അത് ആ പ്രദേശം തന്നെയൊരു നല്ലയൊരു ആംബിയൻസ് അവിടെ നല്ല സറൗണ്ടിങ്സും ആംമ്പിയൻസ് അവിടെ പോകുമ്പോൾ അവിടെ എന്താ നോർമൽ ഡേയ്സി ആൾക്കാർ വലിയതായിട്ടൊന്നും കാണത്തില്ല അപ്പോൾ നമുക്ക് പോയിട്ടൊന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നുള്ള രീതിയ്ക്കാണ് അവിടെ എല്ലാം ഇരിക്കുന്നത് പിന്നെ ഈ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കുറേ കൂട്ടം കാണും അവസാനം എട്ടാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം എന്നൊക്കെ പറയുമ്പോൾ പായസം വിളമ്പുന്നതുകൊണ്ട് ഭക്തി ഇല്ലെങ്കിലും പായസം കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ മാത്രമതിനുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത് പിന്നെ വിമലഗിരി പള്ളിയിൽ എന്താ കോട്ടയം ഡേവിസെസ് അവിടെ വിമലഗിരി പള്ളി അവിടെ നിന്നു വേണം ആ കോട്ടയം ആ അവിടെ ആ വിമലഗിരിപ്പള്ളിയിൽ അവർ എന്താ പെരുന്നാളെന്നു വെച്ചാൽ വീട്ടിലിരുന്ന ആൾക്കാരെല്ലാം രൂപതരയുടെ ഓരോ എന്താ ഇടവക പള്ളിയിലിരുന്ന് കുറച്ച് ആൾക്കാർ എടുത്തിട്ട് എന്താ ഓരോ ഇടവകയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെയിരുന്ന് നടന്ന് അവിടെവരെ ചെന്ന് ഒരു ഇതുപോലെ എന്താ നേർച്ച നേർച്ചയോ എന്തൊ പ്രാർത്ഥിച്ചിട്ട് അവർ അങ്ങനെ പോവാറുണ്ട് അങ്ങനെ പോയിട്ട് വളരേ പള്ളിയിൽപ്പോയി അവിടുത്തെ എന്താ പെരുന്നാൾ ആഘോഷിക്കുക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ക്രിസ്ത്യൻസിൻ്റെ ആ ക്രിസ്ത്യൻസിന് മുഖ്യ പള്ളികളിലും ഈ ഉത്സവം ഈ ക്രിസ്തു മുസ്ലിം എന്താ ഹിന്ദൂസിൻ്റെ ഉത്സവം ക്രിസ്ത്യൻസിൻ്റെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടിയെല്ലാം ഗ്രാൻഡായിട്ടുള്ള കാരണമെന്നു പറഞ്ഞാൽ ആൾക്കാരാണ് ആൾക്കാരെത്ര പേരുണ്ടോ എത്ര പേർ ഇൻട്രസ്റ്റഡായിട്ടുണ്ട് ഇനിഷ്യേറ്റീവെടുക്കുന്നുണ്ട് സ്പോൺസർ ചെയ്യുന്നുണ്ടോ അതിലാണ് കാര്യം അല്ലാതെ വേറൊന്നുമല്ല ആൾക്കാരാണിതെല്ലാം ഗ്രാൻഡാക്കുകയും എല്ലാം ചെയ്യേണ്ടത് ആൾക്കാരാണപ്പോൾ എന്താ ഇപ്പോൾ അതാണ് എല്ലാം ഒരു സംഭവം